ഹലോ ആ നിങ്ങളെങ്ങോട്ടാ താത്താ നിങ്ങളെങ്ങോട്ടാ നിങ്ങളെങ്ങോട്ടാ ഇറങ്ങണെ എവിടെയാണ് ഇറങ്ങണെ ആണോ ഇത് നെലമ്പൂർ പോവൂല ഇത് വടവർത്ത് ചെന്നിട്ട് മഞ്ചേരിക്ക് തിരിയും

അത് സ് കുഴപ്പമില്ല ഇങ്ങൾ വടവർ വടവർത്തെറങ്ങിക്കോളി ഞങ്ങൾ മഞ്ചേരിക്ക് തിരിയും പക്ഷേ നിങ്ങൾക്ക് വടവർത്തെറങ്ങിയാലും നിലമ്പൂർ ബസ്സിട്ടൂലെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വടവർത്തേക്ക് പത്ത് രൂപ അങ്ങനെയാണെൽ നിങ്ങൾക്ക് വടവർത്ത് അപ്പത്തന്നെ ഉണ്ട് ആ ഇപ്പോൾ നാലര ആയില്ലേ നാല് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു മണിക്കൂറ് ഒരു കാ മുക്കാൽ മണിക്കൂർ ആടെ നിൽക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബസ്സ് വരും നേരിട്ടുണ്ടെയ് അത് കുഴപ്പമില്ല നിങ്ങൾ കയറിക്കോളി ഇപ്പം എന്തായലും മ മഴയല്ലെ അപ്പോൾ പിന്നെ നിങ്ങൾ തിരിഞ്ഞിപ്പം ആ എങ്കിൽ കുഴപ്പമില്ല ഇങ്ങളെറങ്ങിക്കോളി ഇങ്ങൾക്ക് സെയിം ഇത് ഇത് ഇതന്നെ വരുന്നുള്ളു ബസ്സുണ്ട് പേടിക്കണ്ട നിങ്ങളെറങ്ങിക്കോളി നിങ്ങൾ പിന്നെ വടവർത്തെറങ്ങി ചെന്നിട്ട് നെലംമ്പൂർക്കങ്ങ് പോവാം അതിന് ഇപ്പോൾ നാലര ഇപ്പോൾ നമുക്ക് പിന്നെ ഒരു നാല് അഞ്ചിനി ബസ്സുണ്ട് കേട്ടോ അപ്പോൾ ഒരിച്ചതും വേണ്ട ഇങ്ങളൊറ്റയ്ക്കല്ലെ ഉള്ളു ആ ആ അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല എന്നാലും നാല് അഞ്ചിന് ബസ്സുണ്ട് നിങ്ങളധികോന്നും നിൽക്കണ്ട മറ്റെ വേറൊരു ദിവസവാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിന് വാ പ്പ ഞമ്മളൈ ഒരു ബസ്സുണ്ട് ആ അതെ വടവർത്ത് നിങ്ങക്കെറങ്ങി കഴിഞ്ഞാൽ നേരിട്ട് ബസ്സുണ്ടാവില്ലെ ര്ക് കേട്ടോ ഞങ്ങളവിടുന്നും തിരിയും സര് മഞ്ചേരിക്ക് ആ നേരിട്ട് കാണാം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ഇങ്ങൾ ഇങ്ങടും തരം മായക്കാല അല്ലെ അപ്പം ഇനിയിപ്പം ഇങ്ങൾ ഇനി വേറെ ബസ്സ് വേറെ ഇവിടുന്നെറങ്ങിയാൽ ബുദ്ധിമുട്ടാണ് അപ്പം പിന്നിങ്ങ് നേരീക്ക് വടവർത്തെറങ്ങി ആണ്ട അങ്ങനെ മാറിക്കേറാം ഒരേ റൂട്ടന്നല്ലെ കുഴപ്പമൊന്നൂല്ല ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ